ഹലോ ചേട്ടാ ഞാനേ ഒരു സ്ഥലം മേടിക്കുന്ന കാര്യത്തിനെ കുറിച്ചേ ചേട്ടൻ്റെ ഒരു നമ്പർ ഇങ്ങനെ കിട്ടിയായിരുന്നേ അപ്പം ഒരു ഫ്രണ്ട് വഴി കിട്ടിയതാണ് അപ്പം ഞങ്ങൾക്ക് ഒരു സ്ഥലം മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ചേട്ടൻ്റെ കെയർ ഓഫിൽ നല്ല സ്ഥലങ്ങൾ ഒക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എന്നൊക്കെ അറിയാനായിട്ട് വിളിക്കുവായിരുന്നു ആ ആണോ അയ്യോ അപ്പം ചേട്ടനാണെന്ന് പറഞ്ഞാണ് തന്നത് കേട്ടോ സോറി ചേച്ചി ആ എനിക്ക് തന്ന ആൾ ചേട്ടനാണെന്ന് പറഞ്ഞ് തന്നതാണ് ആ മനസ്സിലായി മനസ്സിലായി അല്ല ഞാനേ ആ അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഇവിടെ ആലപ്പുഴ നമ്മുടെ തട്ടംപള്ളി നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഏരിയയിലെ തന്നെ നല്ല സ്ഥലങ്ങൾ ചേച്ചിയുടെ അടുത്തുനിന്ന് ചേട്ടൻ്റെ ചേച്ചിയുടെ പരിചയത്തിലോ എന്തെങ്കിലും ഉണ്ടോ ഇപ്പം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നത് വല്ലതും കിടപ്പുണ്ടോ എന്നറിയാൻ ആയിട്ടാണ് വിളിക്കുന്നത് നമുക്കൊരു അഞ്ച് സെൻറ് സ്ഥലം മതി കൂടുതൽ ഒന്നും വേണ്ട നമുക്കൊരു മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം നമുക്ക് ആ അഞ്ച് സെൻറ് സ്ഥലം ഒരു മുപ്പത്തിയഞ്ചിന് മുപ്പത്തിയഞ്ച് വീട് ഒന്നും നമുക്ക് ആവശ്യം ഇല്ല ആ കുഴപ്പം ഇല്ല നമുക്ക് പോവാം ആറിന് ഇടയ്ക്കാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് പോകാം അറിയാം ഉണ്ട്

അയ് അയ്യോ വേണ്ട വേണ്ട ചേച്ചി കാരണം വെള്ളം കയറുന്നത് പറ്റില്ല കാരണം എനിക്ക് കൊച്ചു പിള്ളേരാണ് ഉള്ളത് അപ്പം അവന് ആണെങ്കിൽ അസുഖം അലർജിയോ അസുഖം ഒക്കെ ഉള്ള കുഞ്ഞാണ് അപ്പോൾ നമുക്ക് വെള്ളം കയറുന്ന പ്രദേശം വേണ്ട ആ ആ നമുക്ക് ഒരു തത്തംപള്ളി ആ ഏതോ ഉണ്ടെങ്കിൽ ആ നമുക്ക് പിന്നെ നമുക്ക് വഴിയൊക്കെ നല്ല ഇതായിട്ട് വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഇത് പോലെ വേണം വഴി വേണേ കാരണം ഞങ്ങൾക്ക് ചെറിയ ഒരു കാർ ഉണ്ട് ഒരു കാർ കയറി പോകുന്ന രീതിയിലുള്ള വഴിയും വേണം പിന്നെ നമുക്ക് മുനിസിപ്പൽ മാത്രം വേണം കാരണം ബോർവെൽ വെള്ളം വേണം കാരണം തട്ടമ്പള്ളി ഏരിയയിൽ ഇപ്പോൾ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് ആയതുകൊണ്ട് നമുക്ക് ബോ നമുക്ക് മുനിസിപ്പൽ വെള്ളത്തിന് എപ്പോളും കംപ്ളെയിൻറ് ആണ് അപ്പോൾ ബോർവെൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് രണ്ടും അപ്പോൾ ഇത് കൂടെ ഉള്ളത് ആയിരിക്കണം ആ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ആ ആ അത് ചിലപ്പോൾ അഥവാ മാറിയില്ലെങ്കിൽ ഈ രണ്ടും ഉള്ളത് ആണെങ്കിൽ ഞങ്ങൾക്ക് അത് ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ആ ഞങ്ങൾക്ക് ലോ ലോ പകുതി ലോൺ ആണ് പകുതി ഇപ്പം നമുക്ക് അഡ്വാൻസ് കൊടുക്കാനുള്ള തുകയോളം നമ്മുടെ കയ്യിൽ ഉണ്ട് ഒരു പത്ത് ഇരുപത് നമുക്ക് ഉണ്ട് ബാക്കി നമുക്ക് പിന്നെ ടേക്ക് ഓവർ ചെയ്ത് പിന്നെ ലോൺ ടേക്ക് ഓവർ ചെയ്യാം

ആ ആ ഞങ്ങൾക്ക് ഒന്ന് ആ അല്ല ആ ചേട്ടൻ ആ ചേട്ടൻ സമയം പറഞ്ഞോ ചേട്ടൻ അല്ല ചേച്ചി ചേച്ചിയേ സോറി ചേച്ചി ഒരു സമയം പറഞ്ഞോ അതനുസരിച്ചിട്ട് ഞങ്ങൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് പുള്ളിയുടെ ടൈം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഞങ്ങൾ വന്ന് കാണാം

ഹ് ആണോ ആണോ അല്ല അത് ഞങ്ങളേ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അയൽക്കൂട്ടത്തിൽ ഇരുന്ന് പറഞ്ഞപ്പോഴേ ഒരു പെൺകൊച്ച് ആണ് ഇങ്ങനെ തന്നത് പക്ഷേ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞപ്പോഴും ഒരു ചേട്ടൻ ആണെന്നാണ് പറഞ്ഞത് അതാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ചേട്ടൻ എന്ന വായിൽ വരുന്നത് കേട്ടോ ആ ആ ആ അതാണ് കാര്യം ആ ആ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയം ഒന്ന് പറയാമെങ്കിലേ അതനുസരിച്ചിട്ട് ഞാനും വരാം

ആ അപ്പം അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഞായറാഴ്ച ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയാലോ വിളിച്ചിട്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് ഫ്രീ ആണോ ഏ ആ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഞായറാഴ്ച ഓഫ് ഉള്ള ദിവസമാണ് അപ്പം ഞങ്ങൾ അങ്ങ് വരാം ഏ ശരി എന്നാൽ ഓക്കെ കേട്ടോ ഓക്കെ